ഹലോ കോണ്ട്രാക്റ്ററല്ലേ ഞാൻ ഇങ്ങനെ മാനന്തവാടിന്ന് വിളിക്കുവാണ് എനിക്ക് ഒരു വീട് വെയ്ക്കാന് വേണ്ടിയിട്ടായിരുന്നു ചെറിയ കുറഞ്ഞ നിരക്കിൽ അധികം അധികം റേറ്റാവുക അപ്പോളൊരു പത്ത് പതിമൂന്ന് ലക്ഷത്തിനൊക്കെ ഒതുങ്ങുന്ന ഒരു വീട് കുറച്ച് മോഡലെക്കെ ആയിട്ട് ഇപ്പോഴത്തെ നല്ല ഇന്റ്റീരിലൊക്കെ ആയിട്ടുള്ള മോഡലായിട്ട് ചെയ്യണം ഡിസൈന് പിന്നെ കയ്യിൽ ഇല്ല പക്ഷേ എന്നാലും കുറച്ച് നല്ല മോഡലെക്കെ ആയിട്ടുള്ള ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം ഏതാ വേ ഒരു നാല് ബെഡ്റൂമും ഒന്ന് ഡൈനിംഗ് ഹാള് സിറ്റ് ഔട്ട് കിച്ചണ് പിന്നെ വര്ക്ക് ഏരിയ പിന്നെ എല്ലാം എല്ലാം പിന്നെ ബേത്ത് അറ്റാച്ച്ഡായിട്ടുള്ള

ആ അതെ അതെ ആ ഓക്കെ ആ ഏകദേശം നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഏകദേശം അതിൽ വരുന്ന പോലെ നോക്കാം പത്ത് സെന്റ്റാണ് ആ ആ ആ ആ ആ ആ നിങ്ങൾ ഈ ഇങ്ങനെ ചെയ്യുന്ന വീടിനൊക്കെ എത്രയാണ് റേറ്റ് വരാറ് സാധാരണ ആണല്ലേ ആ ഹാ ആ ആകില്ലേ എന്തായലൊരു ആ ആ ഓക്കെ എന്തായാലൊരു മാക്സിമം പതിനഞ്ചിലൊക്കെ എത്തുന്ന രീതിയിൽ നോക്കാം ആ ആ ആ അതെ അതെ ആ ഞാന് വിളിക്കാം ആ നിങ്ങളുടെ അടുത്തുള്ള മോഡല് എന്തേലും ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് ഇട്ട് തന്നാൽ മതി ഓ ആ ആ ഉണ്ട് ഉണ്ട് ഇതിലേക്ക് അയച്ചാൽ മതി ആ ഓക്കെ ആ ശരി